രാജ്യത്ത് ഏറ്റവും നല്ലത് കളികളെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിയാണ് മെയിനായിട്ടെല്ലാവരും നല്ലോണം കാണുന്നതും വാച്ച് ചെയ്യുന്നതും കളിക്കുന്നതും എല്ലാം ക്രിക്കറ്റ് തന്നെയാണ് ഇന്ത്യയിലെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിയാണ് കൂടുതലും എല്ലാവരും കാണുന്നത് പിന്നെ ലോകമെമ്പാടും ഉള്ളത് ഫുട്ബോളാണ് ഫുട്ബോളാരാധകരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ലോകത്ത് പിന്നെ എന്നാലും ഇന്ത്യയ്ക്ക് ഫുട്ബോളിലൊരു ഇടം നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ലോകകപ്പിലോ ഒന്നിലും സാധിച്ചിട്ടില്ല ക്രിക്കറ്റാണ് ഇന്ത്യയിൽ മൊത്തം ലോകത്തെവിടെ ആണെങ്കിലും ക്രിക്കറ്റ് കാണാൻ നല്ല രസമാണ് നമ്മളിവിടെയും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എല്ലാം ആളുകൾക്കും ഭയങ്കര ഇഷ്ടവുമാണ് പിന്നെങ്ങനെയെന്ന് വച്ചു കഴിഞ്ഞാൽ ഓരോ പലതരം കളികളുണ്ട് ഷട്ടിൽ ബാറ്റ് കളിയുണ്ട് ഹോക്കി ഹോക്കിയാണ് പ്രധാനം ഇന്ത്യേൻ്റെ എന്താ പറയുക ദേശീയ കളിയെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഹോക്കിയാണ് ഹോക്കിയാണ് മെയിനായിട്ട് കളിക്കുന്നത് വിൻഡ് പിന്നെ ലോകത്ത് ഹോക്കിയിൽ ഇന്ത്യ ഇടം നേടിയിട്ടുണ്ട് പക്ഷെ ഫുട്ബോളിൽ ഇതുവരെ ഇടം നേടാനുള്ള സാധ്യത ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇന്ത്യയ്ക്ക് ക്രിക്കറ്റിൽ സാധ്യത നേടിയിട്ടുണ്ട് ലോകകപ്പവർ വിൻ ചെയ്തിട്ടിണ്ട്